ആ മതപരമായിട്ടുള്ള ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയണെങ്കിൽ നമ്മുടെ മുസ്ലിം വിഭാഗങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ മതപരമായിട്ടുള്ള ഉത്സവമാണ് മതപരമായിട്ടുള്ള ആചാരം എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ സാധാരണമായിട്ട് ഈ പത്തിരി ചിക്കൻ കറി അങ്ങനെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ബിരിയാണി അതൊക്കെയാണ് ഞങ്ങൾ തയ്യാറാക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു സഹോദരന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വച്ചാൽ അവരെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉത്സവങ്ങളിലും മറ്റും ഈ സദ്യ അതുപോലെ ഇപ്പം അവരുടെ അമ്പലങ്ങളിലാണെങ്കിലും എന്താണ് ശർക്കര ശർക്കരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പായസം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ തയ്യാറാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ക്രിസ്ത്യൻ സഹോദരന്മാർ ചെയ്യുന്നതെന്താണെന്ന് വച്ചാൽ സഹോദരി അതായത് ക്രിസ്ത്യൻ കുടുംബം അവർ കൊടുത്തത് ചെയ്യുന്നത് അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളിലൊക്കെ ഈ കള്ളപ്പം അതുപോലെയുള്ള അപ്പങ്ങളും ഒക്കെയായിരിക്കും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അപ്പം സ്വാഭാവികായിട്ടും പറയാണെങ്കിൽ ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും പലപ്പോഴും വ്യത്യസ്തമാണ് അത് നമുക്ക് അവരുടെ ഇപ്പോൾ നമ്മുടെ ആണെങ്കിലും അവരുടെയൊക്കെ ആണെങ്കിലും അവരുടെ ഉത്സവങ്ങളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഉത്സവങ്ങളാണെങ്കിലും വ്യത്യസ്ത രീതിയിലാണെങ്കിലും പക്ഷേ ആ ഉത്സവങ്ങളിലെ ഭക്ഷണങ്ങളും വ്യത്യസ്ത രീതിയിൽ ആയിട്ടായിരിക്കും കാണുന്നത് മാത്രമല്ല ഇപ്പം ഇതുപോലെ പ്രത്യേക സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കും അതായത് പ്രത്യേക ഭക്ഷണം ഉപയോഗിക്കുമ്പോൾ അതിൻ്റ പുറകിൽ എന്തെങ്കിലും അതിൻ്റെ ഒര് ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്ക കാണും അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ടിണ്ടായിരുന്നു മുമ്പ് പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല കാരണം അവരുടെ സദ്യയ്ക്ക് പോലും അതായത് നമ്മളെ ഹിന്ദു സഹോദരന്മാരുടെ സദ്യയ്ക്ക് പോലും അതിന് അതിൻ്റേതായിട്ടുള്ള ചില അർത്ഥങ്ങളും അതിൻ്റേതായിട്ടുള്ള ചില കഥകളും പിന്നിലുണ്ട്